അങ്ങനെ കിടപ്പിലാവാൻ മാത്രം പ്രായമായ ആൾക്കാർ പ്രത്യേകിച്ചു കാരണങ്ങളൊന്നുമില്ല പ്രായമാവുമ്പോൾ ആൾക്കാർക്ക് വയ്യാണ്ടാവും അങ്ങനെ കിടപ്പിലാവും അങ്ങനെ കിടപ്പിലായി കുറേ ആളുകൾ ഉണ്ട് ഇപ്പം എൻ്റെ വീട്ടിലും ഒരാൾ ഉണ്ടായിരുന്നു എൻ്റെ ബാപ്പച്ചിയുടെ ഉമ്മ ഉണ്ടായിരുന്നു കുറേ നാൾ കിടപ്പിലായിരുന്നു ഒരു വർഷത്തോളം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ഉണ്ടായി അങ്ങനെ വയ്യാതെ ആയി കിടപ്പിലായതാണ് ആൾ ഞങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് കെയർ ചെയ്തത് ഒരു കുഴപ്പവും ഇല്ല സേയ്ഫ് ആയിട്ടാണ് കെയർ ചെയ്തത് ഇപ്പോൾ വയ്യാത്ത ആൾക്കാരുള്ള വീട്ടിൽ പാലിറ്റീവ് കെയർ ഹെൽത്ത് സെൻ്ററിൽ നിന്നൊക്കെ വന്നു നമുക്ക് വേണ്ടിയുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യും ഇപ്പം മാറ്റാനായാലും ഒരു ട്യൂബ് ഇടാനായാലും അവർ എല്ലാവരും ഭയങ്കര ഹെപ്ഫുൾ ആണ് അതിനൊക്കെ വന്നു ചെയ്തു തരാനെല്ലാം അവർക്കൊന്നും വന്നു ചെയ്തു തരാനാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അവരൊക്കെ ഭയങ്കര ഹെല്പ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഓരോ വീടുകളിലും ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കാനായിട്ട് രണ്ടു പേർ ഉണ്ടാവും ഭാര്യയും ഭർത്താവും ഉണ്ടാവും അങ്ങനെ ഓര മക്കൾ ഉണ്ടാവും ഇമ്പ അങ്ങനെ ആരുമില്ല അവരൊക്കെ ഭയങ്കര ബിസി ആണ് ജോലി തിരക്കായിട്ട് ആണെങ്കിൽ അവർ ഒരു ഹോം നേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യും ശരിക്കും വീട്ടിലെ ആൾക്ക് ആളുണ്ടെങ്കിൽ ഹോംനേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ ശരിക്കും എല്ലാം അവർക്ക് തന്നെ ചെയ്യാവുന്നതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇന്ന് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചിയാണ് എല്ലാം ചെയ്തു കൊണ്ടിരുന്നത് ഉമ്മച്ചി ഒരു നേഴ്സ് ആയിരുന്നു മുന്നേ പഠിച്ചിട്ടൊക്കെ ഉണ്ട് കുറച്ചു നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മിച്ചയാണ് എല്ലാ വർക്കും ചെയ്തു കൊണ്ടിരുന്നത് ഉമ്മച്ചീനെ വല്യുമ്മാനെ നോക്കിയതും വല്യുമ്മായുടെ എല്ലാ കാര്യം ചെയ്തു കൊടുത്തിരുന്നതും ഒക്കെ ഉമ്മച്ചിയാണ് ഉമ്മച്ചി ഒരു നഴ്സ് ആയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഹോം നഴ്സിൻ്റെ ആവശ്യം ഉണ്ടായില്ല പിന്ന ഉമ്മച്ചിക്ക് വേറെ വർക്കും ജോബ് ഒന്നുമില്ല ഉമ്മച്ചി വല്യുമ്മാനെ നോക്കിയതിൻ്റെ പേരിൽ ഉമ്മച്ചി ഹാപ്പി ആയിരുന്നു ഉമ്മച്ചിക്ക് നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല ഞാനും എൻ്റെ ചേട്ടനും ആൻ്റി ഞങ്ങൾ എല്ലാവരും ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യും നോക്കാൻ വേണ്ടിയിട്ട് എണിപ്പിക്കാനായാലും എടുക്കാനായാലും എല്ലാത്തിനായിട്ടായാലും എന്നു വച്ചാൽ കൂടുതൽ ആൾക്കാർ തളർന്നു പോകുന്നത് വയ്യാണ്ടായിട്ട് വല്ല ബ്രെയിൻ സ്ട്രോക്കോ അല്ലേ കാലു വേദനയോ അവർക്ക് കീപ്പേ തളർന്നു പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് ആൾക്കാർ കൂടുതലും തളർന്നു പോകുന്നതൊക്കെ പിന്നെ കുറേ പേര് കിടപ്പിലാവുന്നത് യൂത്ത് പിള്ളേർ വണ്ടിക്ക് ഇടിച്ചു ബൈക്ക് റൈഡ് ചെയ്തു സെയ്ഫ് അല്ലാണ്ട് വണ്ടി ഓടിച്ചു ലോറി മേക്കപ്പൊക്കെ ആയി ഇടിച്ചു തളർന്നു പോകുന്നവരുണ്ട് അത് പ്രായ ആൾക്കാർ മാത്രമല്ല സാഹചര്യം മൂലം യൂത്തായിട്ടുള്ള പിള്ളേരും തളർന്ന് പോകുന്ന ആളുകളുണ്ട് അവരൊക്കെ അവര ഫാമിലി നല്ല രീതിക്ക് നോക്കും ഇപ്പം ചെറു പ്രായത്തിൽ തന്നെ തളർന്നു പോകുന്നു വച്ചാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അവർ ഒരു യങ് ഏജ് അവർ ജീവിക്കേണ്ട ഒരു ലൈഫ് ആയിരുന്നു ആ സംഭവം ആണ് അവിടെ പോകുന്നത് നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല പിന്നെ പിന്നെ അങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ ഒന്നുമില്ല കിടപ്പിലാവാൻ അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല കൂടുതലും കണ്ടേക്കുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരുകൾ കിടപ്പിലാവുന്ന അങ്ങനെയാണ് അസുഖങ്ങൾ വന്നു പ്രായാവുമ്പോൾ എല്ലാവർക്കും അസുഖങ്ങൾ വരും നമുക്കും അസുഖങ്ങൾ വരും അങ്ങനെ കിടപ്പിലാവുന്ന ആളുകളെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്